മലയാള ഭാഷയെക്കുറിച്ച് സാധാരണയുള്ള തെറ്റിദ്ധാരണകൾ കുറച്ച് ഉണ്ട് അത് എങ്ങനെ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഓരോ ജില്ലകളിലും ഓരോരോ ഭാഷയും പിന്നെ അതിൻറെ സംസാരശൈലിയും രീതിയും ഒക്കെ വ്യത്യസ്തമായ തന്നെയാണ് പാലക്കാട് സംസാരിക്കുന്ന വ്യക്തികൾ അതായത് തൃശൂരിൽനിന്ന് തൃശ്ശൂരുകാർ സംസാരിക്കുന്ന രീതികളിലും എല്ലാത്തിലും ഓരോ ഓരോ ജില്ലകളിലും ഓരോ വ്യത്യസ്തമായ ഭാഷയും ശൈലിയുമൊക്കെയാണ് കൊണ്ടു പോകുന്നത് പിന്നെ അതു കൊണ്ടു തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജില്ലയിൽ ഇപ്പോൾ പപ്പായേനെ നമ്മൾ ചിലർ പപ്പായ എന്ന് പറയും ചിലർ കപ്പക്കായെന്ന് പറയും ചിലർ ഓമക്കായ എന്ന് പറയും അപ്പോൾ അതുപോലെ ഒരു വാക്ക് തന്നെയായിരിക്കും ചിലപ്പോൾ ഓരോ ജില്ലകളിലും അത് വ്യത്യസ്തമായ പേരിൽ അറിയപ്പെടുന്നൊരു കാര്യവും പിന്നെ ഇപ്പോൾ കണ്ണൂരു ഭാഷ ആയിക്കോട്ടെ അതൊരു വ്യക്തമായ രീതിയല്ലാത്ത വ്യക്തമായ രീതി എന്നല്ല വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിലും ഒക്കെ സംഭവിക്കാറുണ്ട് പിന്നെ മെയിൻ അതായത് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താ എന്നു വച്ചു കഴിഞ്ഞാൽ അത് ഓരോ ജില്ലകളിലും ഓരോ രീതിക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് പിന്നെ മറ്റു രാജ്യങ്ങൾ മറ്റു രാജ്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തിരിക്കുന്നവർക്ക് മലയാളം ഇത്തിരി ബുദ്ധിമുട്ട് ഇത്തിരി എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടേറിയ ഒരു സംഭവം തന്നെയായിരിക്കും കാരണം ഏതൊരു മലയാളിക്കും ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലും പോയിട്ടാണ് എന്നു ഉണ്ടെങ്കിലും ഇപ്പോൾ തമിഴ്നാട് ആയിക്കോട്ടെ പഞ്ചാബ് ആയിക്കോട്ടെ ഏത് എവിടെ ആണെന്ന് ഉണ്ടെങ്കിലും മലയാളികൾക്ക് പെട്ടെന്ന് തന്നെ മറ്റുള്ള ഭാഷകൾ പഠിക്കാനും ഉൾക്കൊള്ളാനും കഴിയും എന്ന് വിചാരിക്കുന്നു കാരണം മലയാളത്തിന്റെ ഓരോ ഇപ്പോൾ ഓരോ വാക്കുകൾ വഴങ്ങണമെങ്കിൽ അത് പറഞ്ഞു ശീലിച്ച അങ്ങനെയുള്ള ഇപ്പോൾ മലയാളം സംസാരിച്ച സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ മലയാളി എന്ന നിലയിൽ മറ്റു രാജ്യങ്ങളിൽ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതു രീതിയിലുള്ള ഭാഷകളും നമുക്ക് പഠിക്കാനും അങ്ങനെ അത് അത് പ്രവർത്തിയിൽ അതായത് സംസാരിക്കാനും ഒക്കെ സാധിക്കാവുന്ന ഒരു ഭാഷ തന്നെയാണ് മലയാളം എന്നു പറഞ്ഞാൽ പക്ഷേ മറ്റു രാജ്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തികൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാവും കാരണം ഇപ്പോൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പഴം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഴ വരില്ല ഴ വരില്ല പിന്നെ വാഴ പഴം അങ്ങനെയുള്ള വാക്കുകൾ ഒന്നും അവർക്ക് കിട്ടില്ല പക്ഷേ നമുക്ക് തമിഴ് തമിഴ് എന്ന ഭാഷ സംസാരിക്കാൻ അതായത് കുറച്ചൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മൾക്കത് ഉള്ളിൽ അതായത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഭാഷയാണ് പിന്നെ അത് മാത്രമല്ല തെറ്റിദ്ധാരണകൾ പലരീതിക്കും വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ഇപ്പോൾ നമുക്ക് പറയാം സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം അങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് ഒരുപാട് വാക്കുകളും ഒരുപാട് എന്താ പറയുക ഒരുപാട് വരികളും ഒക്കെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഒരു ആയിരക്കണക്കിന് ഏറെ വാക്കുകൾ തന്നെ നമ്മൾ സാഹിത്യമായ രീതിയിൽ ചിന്തിക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ അത്യനവധി കഠിനമായ വാക്കുകളൊക്കെ ഉണ്ട് പക്ഷെ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ മലയാളം അതൊരു സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ മലയാളം വളരെ ഒരു ലളിതമായ ഭാഷ തന്നെയാണ് പക്ഷേ തെറ്റിദ്ധാരണകൾ വരുന്നത് ഈ പറയുന്ന പോലെ ഓരോ ജില്ലകൾക്കും ഓരോരോ വാക്കുകൾ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ അവരുടെ സംസാര സംസാരശൈലിയും രീതിയും എല്ലാം വ്യത്യസ്തമായത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പിന്നെ വലിയ വലിയ കവയത്രികളും കവികളും ഒക്കെ ഒരുപാട് ആഴത്തിൽ ഒക്കെ ചിന്തിക്കുമ്പം ഇപ്പോൾ നല്ല വലിയ വലിയ കഠിനമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഉച്ചരിക്കാനും അതിൻറെ അർത്ഥം ഒരു വാക്കിൽ മനസ്സിൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാഹിത്യം വായിക്കുക ആണ് എന്നു ഉണ്ടെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം വായിച്ചതു കൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല ചിലപ്പോൾ ഓരോ നോവലുകൾ ആയിക്കോട്ടെ കവി എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണമെങ്കിൽ മലയാളത്തിലും അല്ലെങ്കിൽ വായനാശീലവും അങ്ങനെയുള്ള രീതികൾ നമുക്ക് താൽപര്യം ഉണ്ടായിട്ട് ഉണ്ടാവണം പക്ഷേ അതുമാത്രമല്ല ഒരുപാട് ആഴത്തിൽ ഒക്കെ കവികൾ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാധവിക്കുട്ടി മധുസൂദനൻ നായർ അങ്ങനെയുള്ളവരൊക്കെ ഓരോരുത്തർ എഴുതുമ്പോൾ അവരുടേതായ രീതിക്ക് ചിന്തിക്കണം എങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് തവണ ചിലപ്പോൾ വായിക്കേണ്ടതായിട്ട് വരും അത് ചിലർക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നുന്ന കാര്യമായിരിക്കും ഒരു കാര്യം തന്നെ രണ്ടു മൂന്നു പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുന്നത് ചിലർ ഇഷ്ടപ്പെടുന്നതല്ല പക്ഷേ വായനാശീലം ഇഷ്ടമുള്ളവർക്ക് അതൊരു ഇഷ്ടമുള്ള കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഒരുപാട് ആഴത്തിൽ എഴുതുന്ന വാക്കുകൾ മനസ്സിലാകാതെ വരുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണകൾ വരാറുണ്ട് പിന്നെ ഓരോ കവികളും അല്ലെങ്കിൽ കവിയത്രികളും ഓരോ ഓരോ ബാഗ്രൗണ്ട് ഓരോ ഓരോ രീതിയിൽ നിന്നും ജനിച്ചു വളർന്ന വ്യക്തികൾ ആയിരിക്കും അതു കൊണ്ട് തന്നെ അവരുടേതായ ജീവിത ശൈലിയിൽ ആണ് ഇപ്പം ബഷീർ ആയിക്കോട്ടെ അങ്ങനെയുള്ളവരൊക്കെ ഓരോ രീതിയിലും അവരെ ഇപ്പോൾ കോഴിക്കോട് കണ്ണൂര് അവിടെയൊക്കെ വ്യത്യസ്തമായ ഭാഷകളും ശൈലികളും ആണ് ഉപയോഗിക്കുന്നത് അതു കൊണ്ട് തന്നെ അവരുടെ എഴുത്ത് രീതികളിൽ വ്യത്യാസം കാണും നമ്മൾ ഇപ്പോൾ സാധാരണമായി മലയാളം അറിയുന്ന ഒരു വ്യക്തിക്ക് അതൊരു രണ്ട് തവണ ഇപ്പോൾ എന്തേ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകും അല്ലെങ്കിൽ എന്തൂട്ട് അങ്ങനെ ഓരോ ഓരോ രീതിയിലും വ്യത്യാസം വരുന്നവരുണ്ട് അപ്പോൾ ആ ഒരു ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ ആ മനസ്സിലാക്കാൻ പറ്റാത്ത രീതികളിലാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരാറുള്ളത് അത് പരിഹരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാക്കുകൾ ഉണ്ടല്ലോ ഇപ്പോൾ അവൾ എന്നാണെന്നുണ്ടെങ്കിൽ അവൾ അവളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഒരുവിധം പഠിപ്പിക്കുമ്പോൾ ആയാലും അതായത് പഠന അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ അങ്ങനെ മലയാളം എഴുതിപ്പിക്കൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് ഭാഷകളിലോട്ടാണ് അതായത് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള രീതിക്കുള്ള രീതികളിലാണ് പല വിദ്യാർത്ഥിനി വിദ്യാർഥികളും അത് പക്ഷേ ആ ഒരു അംശം മലയാളത്തിൽ നല്ല രീതിക്ക് സംസാരിക്കാനും നല്ല രീതിയിൽ മറ്റുള്ളവരോട് മലയാളത്തിൽ മനസ്സിലാക്കാനും അതായത് വായിക്കുമ്പോൾ ആണെങ്കിലും മനസ്സിലാക്കാൻ ആണെങ്കിലും അത് ഇത്തിരിയെങ്കിലും വിദ്യാഭ്യാസ രംഗത്തും കുറച്ചും കൂടി അധികം കൂട്ടാനെങ്കിൽ ഇപ്പോൾ പത്താം ക്ലാസ് വരെയാണ് പലപ്പോഴും മലയാളം പഠിക്കാൻ നിർബന്ധമുള്ളത് അതായത് ഗവൺമെൻറ് കോളേ അതായത് സ്റ്റേറ്റ് സിലബസ് അങ്ങനെയുള്ളവർക്ക് പക്ഷേ പത്താം ക്ലാസ് എന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതവർക്കൊരു ഓപ്ഷൻ മാത്രമാണ് മലയാളം എന്നുള്ള രീതിക്ക് മലയാളം പഠിക്കുക എന്നുള്ള രീതി അപ്പം ഒരു ഇത്തിരി സമയമെങ്കിലും മലയാളം എന്ന ഭാഷയിൽ ഭാഷയുമായി ഒത്തുചേർന്ന് അതായത് സംസാരിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ള ഇത് കാണിക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും മലയാളം എളുപ്പമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്നതാണ് അപ്പോൾ തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടെങ്കിലും നമ്മൾ അതിൻറെ യാഥാർത്ഥ്യം അതിൻറെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഇത്രയും ആണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്